കുറച്ച് വർഷങ്ങൾക്കുള്ള മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെറിയ ഫോൺ ആണ് അതിൽ ക്യാമറ ഇല്ലാത്ത ഫോൺ ആയിരുന്നു നമുക്ക് നമ്പറ് ഡയൽ ചെയ്യാം ആ വിളിക്കാം അത് റീഡ് ചെയ്യാം അതിന് മാത്രം സാധിക്കുന്ന മൊബൈലുകളായിരുന്നു പണ്ട് കാലത്ത് ഉണ്ടായിരുന്നത് നമുക്ക് കോൾ ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന മൊബൈൽ ഫോണുകൾ നമുക്ക് അന്നത്തെ കാലത്ത് അതിൽ ക്യാമറ ഇല്ല പിന്നെ കുറച്ചും കൂടി വളർന്നപ്പോഴാണ് നമുക്ക് ക്യാമറ ചെറിയ ഫോണിൽ തന്നെ ക്യാമറ അവൈലബിൾ ആയത് നമുക്ക് പഴയ കാലത്തെ ഫോണിൽ ക്യാമറ ഒന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് നമ്പറ് ഡയൽ ചെയ്യാം കോൾ ചെയ്യാം സംസാരിക്കും ഇതിന് മാത്രം സാധിക്കുന്ന ഫോണുകളായിരുന്നു പണ്ട് കാലത്തെന്ന് പറയുന്നത് പക്ഷേ നമ്മുടെ ഇന്ന് നിലവിലുള്ള സ്മാർട്ട് ഫോണുകളെന്ന് പറഞ്ഞാൽ നമുക്ക് ബാക്ക് ക്യാമറ ഫ്രണ്ട് ക്യാമറ അതേപോലെ തന്നെ നമ്മുടെ മൊബൈൽ ഫോണിൽ എല്ലാം നമുക്ക് മൊബൈൽ ഫോണിൽ ലഭ്യമാണ് നെറ്റ്വർക്ക് നെറ്റ്വർക്ക് കണക്ഷൻ അതേപോലെ നമുക്ക് യൂട്യൂബ് ഇപ്പം എന്താണ് പണമിടപാടുകൾ വരെ നമുക്ക് ഇപ്പം ഫോണിലൂടെയാണ് നമുക്ക് ക്യാഷ് കയ്യിൾ ഇല്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് ഫോണ് മതി ഫോണിലൂടെയാണ് നമ്മുടെ പണമിടപാടുകളെല്ലാം നടക്കുന്നത് ഫോണിലൂടെയാണ് നമ്മൾക്ക് ഒരാളെ ഓഡിയോ കോള് മാത്രമല്ല മറിച്ച് വീഡിയോ കോളും ലഭ്യമാണ് ഇന്നത്തെ കാലത്ത് നമുക്ക് ഒരാളെ കണ്ട് സംസാരിക്കാം അത് നമ്മുടെ അടുത്തപ്പുറത്ത് മാത്രമല്ല നമുക്ക് വിദേശത്തുള്ള ആളുകളെ വരെ നമുക്ക് കണ്ടു കൊണ്ട് തന്നെ സംസാരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് അങ്ങനത്തെ ഫോണുകളാണ് നമുക്ക് ഇന്ന് നിലവിലുള്ളത് അതിൽ ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് ഇന്നത്തെ മൊബൈൽ ഫോണുകളിൽ അവൈലബിൾ ആണ് ഗൂഗിള് എന്ത് ഗൂഗിള് നമുക്ക് എന്ത് ടൈപ്പ് ചെയ്താലും നമുക്ക് പഠിക്കാനുള്ളതായിക്കോട്ടെ ജോലി സംബന്ധമായിക്കോട്ടെ അല്ലെങ്കിൽ നമുക്ക് മറ്റ് എന്ത് കാര്യങ്ങൾ അറിയണമെങ്കിലും ഗൂഗിള്ല ടൈപ്പ് ചെയ്താൽ അത് നമുക്ക് അവൈലബിൾ ആയിട്ട് വരും അതേപോലെ നമുക്ക് എന്ത് കാര്യങ്ങളും നമ്മളുടെ പഠനാവശ്യങ്ങൾക്ക് ജോലിയുടെ ആവശ്യങ്ങൾക്ക് എന്ത് ഡാറ്റ സ്റ്റോർ ചെയ്യാനും എല്ലാത്തിനും നമുക്ക് ഇപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ മൊബൈൽ ഫോണിൽ ലഭ്യമാണ് എല്ലാ ഇത് നമുക്ക് ഇപ്പം ഇപ്പോഴത്തേയും ഫോണിൽ പണ്ടത്തെ ഫോണിനെ അപേക്ഷിച്ച് ലഭ്യമാണ് ഞാൻ ഉപയോഗിക്കുന്നത് ജിയോ സിം ആണ് അതിന് റീചാർജ് ചെയ്യുന്നതിനും ഡാറ്റാ പാക്കുകൾക്ക് ഒക്കെയായിട്ട് ഒരു ഇരുന്നൂറ്റി ഒരു ഇരുന്നൂറ്റി അൻപതിന് മുകളിൽ നമുക്ക് ഒരു മാസം നമുക്ക് വരുന്നുണ്ട് ഡാറ്റ കണക്ഷൻ കോള് അങ്ങനെ എല്ലാം കൂടി നമുക്ക് ഒരു പാക്കേജ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അൻപതിന് മുകളിൽ നമുക്ക് വരുന്നുണ്ട്